ഇന്ത്യയിൽ എല്ലാ ഇടങ്ങളിലേയും ഫാഷൻ ട്രെൻഡ്കൾക്ക് ട്രെൻഡ്കൾ ട്രെൻഡ്കള് എല്ലാ സാധിച്ച് സ്വാധീനിച്ചിട്ടുണ്ട് കാരണം പല രീതിയിലുള്ള വസ്ത്രധാരണ രീതിയില് സാധാരണ ജനങ്ങള് ഇഷ്ടപ്പെടും ധരിക്കാനല്ലെങ്കിലും കാണാനായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ പല രീതിയിൽ ഉള്ള കേരളീയരാണേലും പിന്നെ തമിഴ്നാട്ടിലങ്ങനെ ഉള്ള ആളുകളുടെ ആണേലും വസ്ത്രധാരണ രീതിയിൽ നിന്ന് പറയുമ്പഴത്തേക്ക് എല്ലാവർക്കും സ്വീകാര്യമായ രീതീയിലുള്ള വസ്ത്രങ്ങള് എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നേ മോളിവുഡ് ട്രോളിവുഡ് അങ്ങനേങ്കിലൊക്കേന്ന് പറയുമ്പഴത്തേക്ക് നമുക്ക് ഇന്നത്തെ തലമുറയ്ക്ക് കുറച്ചും കൂടി സ്വീകാര്യമായിട്ട് തോന്നും പഴയ രീതി മാറിയിട്ട് പുതിയപുതിയ ഫാഷനുകൾ വരിക വരുന്ന അപ്പം അത് അതിനെ അനുകരിക്കുക അത് ധരിക്കുമ്പഴത്തേക്ക് മറ്റുള്ളവര് അവരെ കൂടുതൽ ആകർഷിക്കുക എന്നുള്ള ചിന്ത വരിക ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ തലമുറയെ വളരെ സ്വാധീനിക്കുന്നുണ്ട് അപ്പം വസ്ത്രം എപ്പോഴും എല്ലാവരും മോശം വസ്ത്രവാണേലും നല്ല വസ്ത്രവാണേൽപ്പോലും എല്ലാവരും ധരിച്ച് കഴിയുമ്പഴത്തേക്ക് അതിലൊരു അഭിമാനം കണ്ടെത്തുന്നവരാണ് അപ്പോൾ ഇന്നത്തെ തലമുറകൾ സിനിമാ നടന്മാരുടെയും സിനിമാനടിമാരുടെയും ഒക്കെ വസ്ത്രം വസ്ത്രം ആ രീതിയില് തയ്പ്പിച്ച് ധരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ് അപ്പോൾ നമ്മള് അവരുടെ നമ്മളുടെ അടുത്ത് വന്ന് പല ഫാഷനിലുള്ള വസ്ത്രങ്ങള് ധരി തയ്ച്ച് കൊടുക്കണമെന്ന് പറയുമ്പം അവർ സിനിമാ നടികൾടേയും നടന്മാരുടെയും ഒക്കെ രീതിയിലുള്ള വസ്ത്രങ്ങളൊക്കെ കൊണ്ട് വന്ന് ഫോട്ടോ സഹിതം കൊണ്ട് വന്ന് നമുക്ക് കാണിച്ച് തരും നമ്മളത് തയ്ച്ച് കൊടുക്കാറുണ്ട് അപ്പം മനസ്സിൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയാണ് ഓരോ ഫാഷനിൽ വസ്ത്രങ്ങളിരിക്കുന്ന അപ്പോൾ മറ്റുള്ളവ എല്ലാവരുടെയും മനസ്സിൻ്റെ തൃപ്തിപ്പെട്ത്ത്ന്ന രീതിയിൽ നമുക്ക് തയ്ച്ച് കൊടുക്കാനായിട്ട് സാധിക്കും സിനിമയ്ക്ക് സമാനമായ വസ്ത്രങ്ങള് സൃഷ്ടിക്കാൻ തയ്ക്കാനൊക്കെ നോക്കിയിട്ടുണ്ട് അത്പോലെ തയ്ച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയ കുട്ടികൾക്ക് ചെറിയ കുട്ടികളുടെ ആ ഡ്രസ്സ്കളൊക്കെ കാണുമ്പഴത്തേക്ക് സിനിമയിൽ കാണുമ്പോൾ അത്പോലെ തയിച്ച് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ യുവജനങ്ങൾക്കാണെങ്കില് ആ സിനിമാ നടിമാരുടെ രീതിയിലുള്ള പുതിയ പുതിയ രീതിയിലുള്ള ഡ്രസ്സ്കളൊക്കെ തയ്ച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവര് തന്നെ നോക്കി കാണുന്നത് എങ്ങനെയാണ് ആ വസ്ത്രധാരണയ്ലൂടെയാണെന്നൊള്ള ചിന്തയില് അവരാ എല്ലാവരും വസ്ത്രം ആ രീതിയിൽ ധരിക്കാനും തയ് തയ്പ്പിക്കാനും നോക്കാറുണ്ട് പഴയ കഥാപാത്രങ്ങൾ പഴയ സിനിമയിലെ കഥാപാത്രങ്ങളുടെ വസ്ത്രരീതി ആ കാലത്ത് എല്ലാവർക്കും സ്വീകാര്യമായിരുന്നു പക്ഷെ ഇന്നത്തെക്കാലത്ത് പഴയ സിനിമകളിലെ വസ്ത്രധാരണ രീതിയിലൊക്കെ പിന്നോട്ട്പോയത് പിന്നോട്ട് പോയിട്ട് ഇപ്പോൾ പുതിയ തലമുറയ്ക്കും ഇന്നത്തെ തലമുറയ്ക്കുമൊക്കെ വേണ്ടത് പുതിയ പുതിയ ഫാഷനിലുള്ള ഡ്രസ്സ്കളാണ് ആ രീതീയിലുള്ള ഡ്രസ്സ്കളൊക്കെ തയ്ച്ച് കൊടുക്കാനായിട്ട് പരിശ്രമിക്കാറുണ്ട് തയ്ച്ച് കൊടുക്കാറുണ്ട് ഞങ്ങക്കൊരു ജീവിതമാർഗ്ഗംകൂടിയാണത് അപ്പോൾ ആ ജീവിതമാർഗ്ഗം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് അനുസരിച്ചുള്ള തയ്ച്ചൊക്കെ കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ തയ്ച്ച് കൊടുത്താൽ അവർക്ക് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ട്പോകാൻ പറ്റത്തുള്ളൂ അത്കൊണ്ട് നമ്മളുടെ ഇഷ്ടവല്ല അവരുടെ ഇഷ്ടം നോക്കി നമ്മള് അവരുടെ ഇഷ്ടത്തിന് തയ്ച്ച് കൊടുക്കുകയാണ് സാധാരണ ചെയ്യുന്നത് പ്പൊയിന്ന് വളരേ വിലകൂടിയ വസ്ത്രങ്ങള് ധരിക്കുന്നവരുണ്ട് സാരിയൊക്കെ സാരിയുടെ സമയമൊക്കെ കഴിഞ്ഞപ്പോൾ ചുരിദാറ് അത്പോലെ തന്നെ പല പല ഫാഷനിലും പല പല രീതിയിൽ ഉള്ള ഡ്രസ്സ്കളൊക്കെയാണെല്ലാവരും ഇന്ന് ധരിക്കുന്നത് ആ രീതിയിൽ അവര് പറയുന്ന രീതിയിൽ പറയുന്ന അളവിലൊക്കെ നമ്മള് തയിച്ച് കൊടുക്കാറുണ്ട് വസ്ത്രം തയ് തയിക്കുന്നത് കൊണ്ട് നമുക്ക് ലാഭമുണ്ട് അത്പോലെ മറ്റുള്ളവര്ടെ ഒര് സ്നേഹവും സന്തോഷവും നമ്ക്ക് കിട്ടും നന്നായ്ട്ട് തയ്ച്ച് കൊടുക്കുമ്പഴ്ത്തേക്ക് അവർടെയൊരു സന്തോഷൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു അഭിമാനവും തോന്നും അപ്പം പഴയ സിനിമകള് മാറി ആ കാലഘട്ടം മാറി പുതിയ സിനിമയിലേക്ക് വന്നു സിനിമ പുതിയ കഥാപാത്രങ്ങള് അത്പോലെതന്നെ ഇന്നത്തെ ജനങ്ങളും പുതിയ കഥാപാത്രങ്ങളായിട്ട് ജീവിക്കും അപ്പോൾ നമ്മള് അവരോടൊപ്പം നിന്ന് അവർക്ക് വേണ്ട രീതിയിൽ വസ്ത്രങ്ങളൊക്ക ധരി തയിച്ച് കൊടുക്കാനായിട്ടാണ് പരിശ്രമിക്കാറുള്ളത് അതിന് എൻ്റെയൊരു പിന്നെ ജീവിത മാർഗ്ഗവും കൂടിയാണ് ആ ജീവിത മാർഗ്ഗത്തിലൂടെ എനിക്ക് തയിച്ച് കൊട്ക്ക്ന്നയിലൂടെ ജീവിക്കാനുള്ളത് അതിൽനിന്നും ലഭിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഒരൂ സംഭവം ഈ തയിച്ച് കൊട്ത്ത് പൈസാ കിട്ട്ന്നു എന്നയ്ല് അതിലും അതിനോടൊപ്പംതന്നെ നമുക്കൊരു സംതൃപ്തി കൂടിയുണ്ട് നന്നായിട്ട് തയ്ച്ച് കൊട്ത്തു അവർക്കത് ഇഷ്ട്ടപ്പെട്ടു അവരത് ധരിച്ച് അഭിമാനത്തോടൂടി പോകുന്നത് കാണുമ്പോൾ നമുക്ക് ഒരു സന്തോഷമുണ്ട് അപ്പോൾ മറ്റുള്ള കാഷും ഇല്ലാതെ കാഷില്ലാതെ വസ്ത്രം തയിച്ചിടുന്നവരും ഉണ്ട് അവരേയും നമ്മള് നിരാശപ്പെടുത്താതെ അവർക്ക് വേണ്ട രീതിയിൽ ആ കാഷില്ലാതെയും തയ്പ്പിച്ച് കൊടുക്കുക തയ്ച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മള് ഇന്ന് തയ്യൽക്കാരുടെ ഒരു രീതിയെന്ന് പറഞ്ഞാല് പൈസയ്ക്ക് വേണ്ടിയിട്ട് അവര് ഏത് രീതീ പൈസക്ക് വേണ്ടിയിട്ട് അവര് തയ് തയിക്കുന്നു ആ പൈസ കിട്ടുന്നതിൽ നിന്നുകൂടെ അവർക്കൊരു ജീവിത തയ്ക്കുന്നതിൽ നിന്ന് ജീവിതമാർഗ്ഗമാവും അപ്പോൾ അതിൽനിന്നും നാം ഒരു പുറത്ത് ജോലിക്ക് പോകാനൊന്നും പറ്റാത്ത രീതിയിൽ നമുക്ക് വീട്ടിലിരുന്നു ചെയ്യാവുന്നൊരു തൊഴിലാണ് അത് വളരെ നല്ലൊര് സംരഭമാണ് തയ്യലെന്ന് പറയുന്നത് ഇപ്പം എല്ലാവർക്കും വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നതാണ് അതിനൊക്കെ സർക്കാര് അതിനൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വരിക അതിന് വേണ്ട സാഹചര്യങ്ങളൊക്കെ അതിന് കൊടുക്കുകയൊക്കെ നല്ലതാണ്